ഹലോ ആ പഞ്ചാബ് ബാങ്ക് ആ പറഞ്ഞോളു ആ ഗോൾഡ് ലോൺ ആ ഗോൾഡ് ലോണായിട്ടാണ് എടുക്കേണ്ടതല്ലേ ആ ഒരു പവന് മുപ്പത്തി മുപ്പത്തി രണ്ട് ഇരുന്നൂറാണ് വരുക ആ എത്ര പവനുണ്ട് കയ്യിൽ മൂന്ന് പവന് എത്ര രൂപയാണ് വേണ്ടത് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപേടെ അടുത്ത് കിട്ടുവായിരുന്നല്ലെ ആ അത്ര കിട്ടുവോന്ന് തോന്നുന്നില്ല പിന്നേ വേറെ നികുതി ചീട്ടോ കാര്യങ്ങളോ എന്തേലുമുണ്ടോ സ്ഥലമുണ്ടോ സ്വന്തം പേരിൽ ഒരു ഏക്കർ ഉണ്ടല്ലേ അതിൻ്റെ നികുതി ചീട്ട് നിങ്ങളുടെ പേരിലാണോ ഉള്ളത് അതോ അച്ഛൻ്റെയോ ആരുടേലും പേരിലാണോ അച്ഛൻ്റെ പേരിലാണല്ലെ ആ അപ്പം അച്ഛനേം കൂട്ടീട്ട് വരുവാണെങ്കിൽ നമുക്ക് കെ സി സിന്ന് പറഞ്ഞൊരു ലോണുണ്ട് അതായത് കാർഷിക വായ്പാന്ന് പറയും ആ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡിനാണെങ്കിലും നമുക്ക് അപ്പോൾ കാർഷിക വായ്പ്പയായിട്ടാണെങ്കിലും മുപ്പത്തി ഏഴ് ഇരുന്നൂറ് വെച്ച് കിട്ടും അല്ലാണ്ടാണെങ്കിൽ മുപ്പത്തി രണ്ട് ചില്ലറയാണ് കിട്ടുക

മുപ്പത്തേഴും കിട്ടും അപ്പോൾ അതായിരിക്കും കുറച്ച് കൂടി ബെറ്ററായി ഇൻട്രസ്റ്റ് നമുക്ക് അതിന് നാല് ശതമാനമാണ് ഇൻട്രസ്റ്റ് വരുക അ മറ്റതിന് മറ്റതിന് പത്രണ്ട് ശതമാനം വരും നമ്മളല്ലാണ്ട് പന്ത്രണ്ട് ശതമാനം വരും അപ്പോൾ കുറച്ച് കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റത് അതായത് മറ്റേ കാർഷിക വായ്പയായിട്ട് എടുക്കുന്നത് ആയിരിക്കും കുറച്ച് കൂടി ബെറ്ററായി ആ അതാണെങ്കിൽ വർഷം വർഷം അടച്ചാൽ മതി മറ്റേതാവുമ്പോൾ മാസം മാസം നമ്മൾ അടക്കേണ്ടി വരും ഇൻട്രസ്റ്റ് അതിന് കൂടുതലായിരിക്കും വേറേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഇവിടന്നൊരു അക്കൗണ്ട് എടുക്കണം അക്കൗണ്ടുണ്ടോ ഇവിടെ ആ അങ്ങനെ ആണെങ്കിൽ എടുക്കണ്ട നികുതി ചീട്ടും രണ്ട് ഫോട്ടോ ആധാറ് പാൻ കാർഡ് ഇത്രേം മതി

നാളെ പോരെ നാളെ തന്നെ ക്യാഷ് എടുത്ത് തന്ന് ആ വരുമ്പോൾ പപ്പേനേം കൂടെ കൂട്ടിക്കോളു ഒകെ മാം